ഫുഡ് ഹലോ

ആ ആരാ ഇത് ആ ഇത് ഓർഡർ ചെയ്യാൻ വേണ്ടീട്ട് ആയിരുന്നു മറ്റേ ഫുഡും കാര്യങ്ങളക്കെ ആയിട്ട് ഒരു കല്ല്യാണ പരിപാടി ഉണ്ട്

ഒരു മൂന്ന് ദിവസത്തേക്ക് ഉള്ള ഒരു ആയിരം പേർക്ക് ഉള്ള ഫുഡ് നോക്കാൻ ബിരിയാ ബിരിയാണി ഇത് മതി ബിരിയാണി ആയിട്ട് ആ ആ സദ്യ മതി ആ

അത് രണ്ട് ദിവസത്തേക്ക് മതി വീഡിയോ ആണ് ആ വീഡിയോ ആ വീഡിയോയും ക്യാമറയും രണ്ടും കൂടി വേണം ആ ആ

അത് ഓഡിറ്റോറി ആ അത് ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ ഉള്ള അത് മാത്രം മതി വേറെ ഉത്സവം പിന്നെ അങ്ങനെ ഒന്നും വേണ്ട ആ ആ ആ അത് മണ്ഡപത്തിൽ ഉള്ള അത് അങ്ങനെ ഉള്ള ഡെക്കറേഷൻ മാത്രം മതി വലിയ ഇതൊന്നും ഇല്ല സെറ്റപ്പ് ഒന്നും വേണ്ട ആ സാധാരണ രീതിയിൽ ഉള്ള അത് മതി ആ ആ ചെയ്താൽ മതി

ആ ഒരു ആ വൈറ്റും വൈറ്റും ചുവപ്പും മാച്ച് വൈറ്റ് വൈറ്റും ചുവപ്പും വെച്ചാൽ മതി റെഡും വെച്ചാൽ മതി ആ ആ ആ ആ ആ ആ ആ

ആ ആ ആയിക്കോട്ടെ ആ ആ ഞാൻ വന്ന് ഒന്ന് നോ നോക്കാം അത് എങ്ങനെ വന്ന് നോക്കാം ആ ആ വരുന്ന ദിവസം ഞാൻ വിളിക്കാം എന്നാൽ